ഞങ്ങളുടെ പ്രദേശത്ത് പത്താം ക്ലാസിന് ശേഷം വിദ്യാർഥികൾ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് രണ്ടു രീതിയിലാണ് അതായത് ഒരുവിഭാഗം കുട്ടികൾക്കാകട്ടെ എത്രയും വേഗം ജോലി എന്നുള്ള ലക്ഷ്യമാണ് അതുപോലെതന്നെ മറ്റുവിഭാഗം കുട്ടികൾക്കാണെങ്കിൽ പഠനം അത് അവരുടെ ഹയർ എജ്യുക്കേഷനും അതുപോലെ തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുകയും അതുപോലെ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതും ഇപ്പോൾ ഇപ്പോൾ കുട്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് രണ്ടു തരത്തിലുള്ള കുട്ടികൾ നമ്മളെ നാട്ടിൻപുറങ്ങളിൽ കാണാറുണ്ട് ആൺകുട്ടികൾ കൂടുതലായും നാട്ടിൻപുറങ്ങളിൽ പഠിക്കുന്നു പഠിക്കുകയും അതോടൊപ്പംതന്നെ അതായത് വി എച്ച് എസ് സി പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും അപ്പോൾ പഠനത്തോടൊപ്പം പരിശീലനവും നേടി അവർക്ക് എത്രയും വേഗം ജോലി സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വിദ്യാർഥികൾ പഠിക്കുന്നുണ്ട് അവരതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ചെയ്യുന്നുണ്ട് അതായത് വെബ് ഡിസൈനിങ്ങ് ഗ്രാഫിക്കൽ ഡിസൈൻ അങ്ങനെയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ചെയ്ത് അവർക്ക് എത്രയും വേഗം പുറം രാജ്യങ്ങളിൽ പോയി ഒരു നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പഠിക്കുന്ന കുട്ടികളുമുണ്ട് എല്ലാ കുട്ടികളും ബിരുദമോ ബിരുദാനന്തര ബിരുദവും നേടുന്നതാണ് നേടണം എന്നില്ല മറിച്ച് പെൺകുട്ടികളാവട്ടെ അവർക്ക് പറ്റുന്ന രീതിയിൽ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടി നല്ല നല്ല കമ്പനികളിലേക്ക് അവര് സെലക്ഷൻ എടുത്ത് അവര് നല്ല ഒരു ജോലിയിലേക്ക് എത്തിയിട്ട് മാത്രമേ ഇപ്പോഴുള്ള പെൺകുട്ടികളൊക്കെ വിവാഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നെയുള്ളൂ അതുകൊണ്ടുതന്നെ രണ്ടുരീതിയിൽ കുട്ടികൾ പഠനത്തെ കാണുന്നുണ്ട് പത്താം ക്ലാസിനുശേഷം ഒരു വിഭാഗം കുട്ടികളാണെങ്കിൽ പഠനത്തോടൊപ്പം ജോലി എന്നുള്ളതുപോലെതന്നെ മറ്റു വിഭാഗം കുട്ടികളാണെങ്കിൽ പഠനത്തിൻ്റെ ഏറ്റവും നല്ല നിലയിൽ എത്തിയിട്ട് നല്ലൊരു ജോലി സ്വന്തമാക്കിയിട്ട് മാത്രം അവരുടെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് എന്ന് തീരുമാനിക്കുന്ന കിട്ടികളുമുണ്ട് അങ്ങനെ ഞങ്ങളുടെ പ്രദേശത്ത് ഒര് വിഭാഗം കൂടുതൽ കുട്ടികളും പഠിക്കുന്നത് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള എസ് എസ് എൽ സിയോ പ്ലസ് ടുവിനോ ശേഷം വി എച്ച് എസ് സി ഐ ടി ഐ പോലുള്ള കോഴ്സുകൾ തന്നെയാണ് ഡിപ്ലോമ കോഴ്സുകളാണ് കൂടുതലും ചെയ്യാറുള്ളത്